എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ കറിയും നെയ്ച്ചോറും വയ്ക്കാനാണ് ഇപ്പം നമുക്ക് ഇപ്പം നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വരുമ്പം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം അത് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാനാണ് അപ്പം നെയ്ച്ചോറെന്ന് വച്ചിട്ടുങ്കിൽ അതായത് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ പിന്നെ എന്താ പാടെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പം എന്താ എല്ലാവരും വെജ് നോൺവെജ് കഴിക്കണം എന്നില്ല അപ്പം നമ്മൾ നോൺവെജ് വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് വയ്ക്കാനാണ് കാരണം ചിക്കൻ കറിയെന്നു വച്ചിട്ടുണ്ടങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് മസാല റെഡിയാക്കുക ചിക്കൻ കഴുകി വയക്കാം അതിലേയ്ക്ക് ഇടുക കറി റെഡിയായി പക്ഷേ പച്ചക്കറിയെന്നു നമ്മൾ ആരെങ്കിലും ഇപ്പം പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പം പച്ചക്കറി നോക്കുമ്പം വെറും ഒരു സാമ്പാർ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അത് അത്ര ശരിയല്ലല്ലോ നമുക്കും എന്തോപോലെ അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ കറികളൊക്കെ എല്ലാ കറികളും വയ്ക്കുമ്പം നമുക്ക് അങ്ങനെ എല്ലാ കറികളും വയ്ക്കാൻ പറ്റിയെന്നും വരില്ല പക്ഷേ ഈ ചിക്കൻ കറിയും നെയ്ച്ചോറും എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് ഒരു ചള്ളാസും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു ഇതാണ് ചിക്കൻ കറിയും നെയ്ച്ചോറും എനിക്ക് അത് അതുകൊണ്ട് ആണ് എനിക്ക് അതിഷ്ടം